ഭാഷ എന്നാൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരുപാധിയാണ് ഇന്ന് മലയാളികൾ ഇല്ലാത്ത ഒരു നാടു പോലും ഇല്ല എന്നാൽ മറ്റുള്ളവർക്ക് മലയാള ഭാഷ പഠിക്കുക എന്നത് പ്രയാസമായ കാര്യം തന്നെയാണ് ഇന്ത്യൻ ഭാഷകളിൽ പഠിക്കാൻ പ്രയാസമുള്ള ഭാഷകൾ ഒന്ന് തന്നെയാണ് മലയാളം അതിനാൽ മലയാളം അറിയാത്ത മറ്റ് ആളുകളോട് മലയാളം പറഞ്ഞ് മനസിലാക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇതൊന്നും മലയാളികളെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല മലയാളം അറിയാത്തവരോട് ആശയ വിനിമയം നടത്താൻ മലയാളികൾക്ക് അറിയാം ഒരു പക്ഷെ ആശയ വിനിമയത്തിനായി മറ്റു നാട്ടിലുള്ള ഭാഷ പഠിക്കുകയും ആ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നവരാണ് നമ്മൾ ആംഗ്യ ഭാഷയും വശമുള്ളവരാണ് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭാഷ അറിയാതെ ആയി വന്നാൽ ആംഗ്യം കാണിച്ചെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് മനസിലാക്കി കൊടുക്കാൻ മലയാളികൾക്ക് കഴിയും ആശയ വിനിമയത്തിനായി ഇങ്ക്ളീഷ് ഭാഷ ഉപയോഗിക്കും ഉപയോഗപ്പെടുത്തുന്നവരാണ് കൂടുതൽ പേരും കാരണം മിക്ക നാട്ടിലും ഇങ്ക്ളീഷ് എന്ന ഭാഷ അറിയുന്ന കൂടുതലാൾക്കാരെ കൊണ്ട് അങ്ങനെ നമുക്ക് ആശയ വിനിമയം നടത്താനായി സാധിക്കും ഇതൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ മലയാള ഭാഷ പഠിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്